ഹലോ അത് ഞാൻ അവിടെ ഇത് എവിടെയാണ് സ്ഥലം വരുന്നത് മുവാറ്റുപുഴ അല്ലെ ആ ഓക്കെ ഞാൻ നിങ്ങളുടെ ഷോപ്പിലോട്ട് വരാന് ഇരിക്കുവായിരുന്നു അപ്പം എനിക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വേണമായിരുന്നു എനിക്ക് എനിക്ക് ഈ അതായത് നമ്മളിപ്പം ഈ ബൊഗയൻവില്ലയിൽ പ് അത് സെവറല് ടൈപ്സ് ഓഫ് അങ്ങനെ ചെയ്ത ക്രാഫ്റ്റ് ചെയ്ത ടൈപ്പില്ലേ

ആ എല്ലാ കളറും മിക്സ് ആയിട്ടുള്ളത് കാണുമോ ആ അപ്പം ഇതെത്ര ഫീറ്റാണ് വരുന്നത് ഇത് എത്ര അടി വരെ വളരും ആ ആ ആ നിങ്ങളപ്പം അത് വീട്ടിൽ കൊണ്ടുവന്ന് തരുവോ അതോ ഞാന് അവിടെ നിന്ന് എങ്ങനെയാണ് ആ ഇപ്പം ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാണ് ഉം ആ ആ അപ്പം ഇതിന്റ ഇപ്പം ഇപ്പം ബാ അപ്പം ഈ അതിന്റെ ചെടിച്ചട്ടി ഒക്കെ എങ്ങനെയാണ് റേറ്റ് എല്ലാം കൂടെ ഇന്ക്ലൂഡ് ചെയ്ത് എന്ന് വെച്ചാൽ എനിക്കിപ്പം ബൾക്ക് ആയിട്ട് എടുക്കാനായിരുന്നു ആ നിങ്ങൾ അപ്പം എവിടെ നിന്നാണ് ഇത് എടുക്കുന്നത് എവിടെ നിന്നാണ് നിങ്ങളുടെ ആ അപ്പം ഞങ്ങൾ ഇന്ന് വൈകിട്ടങ്ങോട്ട് വരാം അപ്പം നിങ്ങൾ ഇപ്പം റേറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ട് അതിന്റെ എല്ലാം കൂടെ ഒന്ന് ഡീൽ ചെയ്യണം പിന്നെ എന്റെ ഒരു ഫ്രണ്ടും കൂടെയെ നാളെ ചിലപ്പം വരുമായിരിക്കും അപ്പം അവനും ഈ ക്രാഫ്റ്റ് ചെയ്തതാണ് വേണ്ടത് ആ ആ